മലബന്ധം ഭേദമാക്കുവാൻ സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമുന്തിരി ഇട്ട വെള്ളം ചില ജ്യൂസുകൾ അതായത് കാരറ്റ് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് എന്നിവ ആൾക്കാർ പൊതുവെ കു കുടിക്കാറുണ്ട് അതുപോലെ തന്നെ ചില പഴവർഗ്ഗങ്ങൾ അതായത് പഴം തക്കാളി വെളുത്തുള്ളി പോലെയുള്ള ചില പഴവർഗ്ഗങ്ങളുപയോഗിക്കുന്നു ആഹാരത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ കാരണം കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ മലബന്ധം പോലെയുള്ള ഈ രോഗങ്ങൾക്ക് ഒരു ശമനമുണ്ടാവുകയുള്ളു അതുകൊണ്ട് ഇതുപോലെ ഇതുപോലെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ പഴവർഗ്ഗങ്ങൾ ബ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അത്കൂട്ട് തന്നെ കൂവപ്പൊടി ഒരു ഉത്തമ ആഹാരമാണ് പക്ഷേ കൂവപ്പൊടിക്ക് വിലക്കൂടുതലായത് കൊണ്ട് തന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള താരതമ്യേനെ വില കുറഞ്ഞ ചില വൈദ്യങ്ങളാണ് നാട്ടുവൈദ്യങ്ങളാണ് ആൾക്കാർ പൊതുവെ പ്രയോഗിച്ച് വരുന്നുള്ളത് അതുപോലെ തന്നെ മലബന്ധം ഉള്ളവർ പൊതുവെ ചോക്ലേറ്റ് പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം ആഹാരപദാർത്ഥങ്ങളുടെ ഉപയോഗം കുറക്കേണ്ടതാണ്